ഹലോ ഇത് ഹൗസ് ബ്രോക്കർ അല്ലായിരുന്നോ ഞാൻ ഒരു ഗവൺമെൻറ്റ് ജോലിക്കാരൻ ആയിരുന്നു ഞാൻ കോഴിക്കോട്ടേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടി അങ്ങോട്ട് വരുന്നത് ആയിരുന്നു ആ ഞാൻ ടെക്നോ കെമിക്കൽ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വരുന്നതായിരുന്നു അങ്ങോട്ടേക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു വർഷത്തേക്ക് ആണ് എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയത് ആയിരുന്നു ആ അപ്പം അവിടെ ഒരു പ്ലോട്ട് ഏരിയ വീട് ഫാമിലിക്ക് ആയിട്ടുള്ള വീട് ഉണ്ടാകുമോ ഏഹ് രണ്ട് നില വേണമായിരുന്നു ഫാമിലി അടക്കം ആണ് വരുന്നത് ഒരു അഞ്ച് പേര് ഉണ്ട് ആ അഞ്ച് പേർക്ക് പറ്റിയ വീട് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ആ ഇത് റോഡ് സൈഡ് തന്നെ അല്ലേ വരുന്നത് അത്യാവശ്യം നല്ല സിറ്റി ആ ഓക്കെ ഓക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഒരു സീറ്റിയിൽ ഉള്ള ഒരു സ്ഥലം ആയിരുന്നു വേണ്ടത് ഇത് ആ ഓക്കെ എനിക്ക് പെട്ടെന്ന് പോയി വരാൻ പിന്നെ വണ്ടി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ആയിരുന്നു വേണ്ടത് ആ ഓക്കെ അങ്ങനെ ഒരു സ്ഥലം ആ ആ ഓക്കെ ഏകദേശം റേറ്റ് എത്രയായിരിക്കും ആ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ

ആ ഓക്കെ ഓക്കെ എന്താ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഈ നമ്പറിലോട്ട് ഒന്ന് വാട്ട്സ്അപ്പ് ചെയ്യുമോ ആ ഓക്കെ ഞാൻ ഫാമിലീനെ കൂടി ഒന്ന് കാണിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇന്ന് വൈകുന്നേരം പറയാം വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എത്തും

ആ ഓക്കെ ആ ഓക്കെ താങ്ക് യു ആ ഓക്കെ ബൈ ആ ഓക്കെ